എനിക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസുന്ന് പറഞ്ഞ് കയിഞ്ഞാൽ ഞാനൊരു ബെഡ്ഷീറ്റ് മേടിച്ചായിരുന്നു അതായത് എനിക്ക് ഹോസ്റ്റലിൽ ഞാൻ നിൽക്കുന്ന സമയത്തെനിക്ക് യൂസ് ചെയ്യാനായിട്ടൊരു ബെഡ്ഷീറ്റ് മേടിച്ചിരുന്നു അതവിടെ കാണുമ്പം നല്ല ക്വാളിറ്റിയുണ്ട് നല്ല ഭംഗി കണ്ടായിരുന്നത് കയറിയത് നല്ലൊരു കളർൽ ഒക്കെ ഞാനാ കടേന്ന് മേടിച്ചു കൊണ്ട് വന്നു അപ്പം നമുക്ക് ഹോസ്റ്റലെന്ന് പറയുമ്പം തന്നെ ഒരുപാടാളുകൾ ഉള്ളൊരു റൂമാണവിടെ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണേ തന്നെ നമുക്കെന്തേലൊക്കെ സംഭവിച്ചാലും നമ്മുടെ വീട്ടുകാരൊക്കെ നമുക്കുള്ളത് അങ്ങനെ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും നമുക്കൊന്ന് അഡ്ജസ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഹോസ്റ്റൽ ഹൗസിലൊക്കെ നിൽക്കുമ്പം അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് എനിക്ക് എൻ്റെ ബെഡ്ഷീറ്റെന്ത് ചെയ്യാൻ തുടങ്ങിയ ഫസ്റ്റ് ഒരു കുറച്ച് നാൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഇതൊന്ന് ആ വാഷ് ചെയ്തു കഴുകിയപ്പം തന്നെ അതിൻ്റെ കളറ് പോവാൻ തുടങ്ങി അങ്ങനെ ഈ കളറ് പോയേൻ്റെ പേരിൽ അത് മറ്റ് നമ്മൾ കഴുകി വിരിച്ചത് സ്ഥലത്ത് കിടന്ന മറ്റ് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെയായിട്ട് കളറ് പിടിച്ചു അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബാഡ് എക്സ്പീരിയൻസായിരുന്നത് അങ്ങനെ പിന്നെ വന്നിട്ട് പിന്നൊരു അടുത്ത കഴുകക്കൊക്കെ ആയപ്പൊഴത്തേക്ക് അതിന് അതിൻ്റെ കളറെല്ലാം പോയി കളറ് ഫേഡായി ലാസ്റ്റൊരു പഴം തുണിയാണതൊക്കങ്ങായി മാറി എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ വേറെ ആ മേടിക്കേണ്ടി വന്നു അതേ കണക്ക് ആ ഒരു ബെഡ്ഷീറ്റ് അത്രേം എനിക്ക് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസന്നെയായിരുന്നു അത് കഴുകാനും ഭയങ്കര പാടായിരുന്നു എന്നിട്ട് കളറും ഫേഡായി അത് ലാസ്റ്റിപ്പം ചവിട്ടി തേക്കുന്ന തുണികണക്കങ്ങായി മാറി